രോഗങ്ങൾ തടയാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് അടച്ചുവച്ച ഭക്ഷണം കഴിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ശുചിത്വം നോക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ടാണ് ഭക്ഷണമൊക്കെ വയ്ക്കാറ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ രോഗങ്ങൾ വരാൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പനിയോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആവി പിടിക്കും അതിൽ കുറച്ച് തുളസിയിലയും പിന്നെ കുറച്ച് വിക്സിൻ്റെ ഇതും പനികൂർക്കേൻ്റെ ഇല അതൊക്കെ വച്ചിട്ട് ആവി പിടിച്ചാൽ വേഗം പനിയൊക്കെ ഇതാവും കുറയാറുണ്ട് പിന്നെ നമ്മൾ ആ അത്ര കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ രോഗത്തിന് രോഗങ്ങളൊക്കെ തടയാൻ വേണ്ടി ഉപയോഗിക്കാറ്